പാലക്കാടിലെ നാടൻ കളികൾ എന്ന രീതിക്കല്ലെങ്കിലും ഫുട് ബോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കളിയാണ് അതുപോലെ പാലക്കാട്ടുക്കാരുടെയും പ്രിയപ്പെട്ട ഒരു കളിയാണ് ഫുട് ബോൾ കുട്ടികളെല്ലാം ക്ലാസ്സ് സ്കൂൾ കഴിഞ്ഞ് കളിക്കാനൊക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഫുട് ബോൾ നാട്ടിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് വന്ന് എതെങ്കിലുമൊരു പൊതുവായിട്ടുള്ള ഒരു പറമ്പ് ഉണ്ടാകും എല്ലാ എല്ലാ നാട്ടിലും ഒരു ജസ്റ്റ് ഒരു പറമ്പ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടും മുതിർ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പറമ്പാണ് അങ്ങനെയൊരു പറമ്പിൽ നാല് പേരും ഒരു പത്തു പേരൊക്കെ കൂടി പന്തുകളിക്കുന്നത് കണ്ടുവരുന്ന കാഴ്ചയാണ് അങ്ങനെ എല്ലാ വിനോദ പ്രവർത്തനങ്ങൾ കായിക പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ് നമ്മളത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ് കാര്യം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഫോണിൽ മാത്രമായിട്ട് ഒതുങ്ങി ഒതുങ്ങി ചേരുമ്പോൾ ഫുട് ബോളും മറ്റും കളിച്ച് അവരുടെ ബോഡി ഹെൽത്തും കൂട്ടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ കളിക്കുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അങ്ങനെ പാലക്കാടുമുണ്ട് ഓരോ നാട്ടിലും ഓരോ വില്ലേജിലും ഒരോ ചുറ്റുപ്പാടത്തെ ഒരു വലിയ ഒരു പറമ്പ് അവിടെ പത്തിരുപതു പേർ വന്ന് ഫുട് ബോൾ കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്നു അങ്ങനെ അങ്ങനെ കൂട്ടത്തോടെ വന്ന് കളിച്ചു പോകുന്നത് അവരുടെ തന്നെ ആരോഗ്യത്തിനും മിക്കവാറും നല്ലതാണ്